ഞാൻ എൻ്റെ കാർട്ടിലേക്കു കുറെ ഐറ്റം കുറെ സാധനങ്ങള് സെലക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ആവിശ്യമുള്ളപ്പോൾ ഞാൻ വിലനിലവാരം നോക്കിയിട്ടും ഗുണനിലവാരം നോക്കിട്ടും മല്ല കാർട്ടിലേക് മാറ്റിട്ടാണ് പിന്നെയാണ് ഞാൻ അത് വാങ്ങിക്കാറുള്ളത് അപ്പോൾ ഇപ്പോൾ കാർട്ടിലു ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ കാർട്ടിൽ നിന്ന് അതൊക്കെ മാറ്റിട്ടൊണ്ടങ്കില് എനിക്ക് പുതിയ പ്രോഡക്ട്സ് അതില് ആഡ് ചെയ്തിട്ട് പിന്നെ മേടിക്കാൻ പറ്റുവായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന്കളഞ്ഞു തന്നിട്ടുണ്ടങ്കില് നല്ലതായിരുന്നു കാർട്ടില് ഇപ്പോൾ പതിനഞ്ചു പ്രൊഡക്റ്റുകളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിട്ട് അതൊക്കെ കാർട്ടിൽ നിന്ന്നീക്കം ചെയ്തിട്ടാകുമ്പോൾ എനിക്ക് പുതിയ കുറെ കുറെ സാധനങ്ങളെ അതില് കൂട്ടിച്ചേർക്കാനും അത് പിന്നെ എനിക്ക് ആവിശ്യമുള്ളപ്പോ വാങ്ങാനും പറ്റുവായിരുന്നു അതൊന്നു ചെയ്ത് തരണം അങ്ങനെ ആണെങ്കില് എനിക്ക് ഈ സേവനം വീണ്ടും ഭാവിയിലും ഉപയോഗിക്കാമല്ലൊ